ഹലോ ആ ഇത് വിൽട്ടൻ ഹോട്ടലല്ലേ ഓക്കെ ഓക്കെ ഞാൻ കുറച്ചുനേരം മുൻപ് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആഹ് ആഹ് അതന്നെ ആ അഡ്രസ് തന്നെ ആ അപ്പോൾ ഇത് ഫുഡ് ഓർഡർ ചെയ്തിട്ട് നിങ്ങൾപറഞ്ഞത് അരമണിക്കൂറുകൊണ്ട് എത്തിക്കാമെന്നായിരുന്നു അപ്പം ഇതുവരെ ഫുഡ് എത്തീട്ടില്ല ആ ആഹ് ഓക്കെ ഓക്കെ ആഹ് അല്ല നിങ്ങൾ പറഞ്ഞ ടൈമില് എത്താത്തതുകൊണ്ട് ഞാൻ വിളിച്ചു നോക്കിയതാണ് ഇതിപ്പോൾ ഇങ്ങനെ താമസിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയേണ്ടതായിരുന്നു അല്ല ഡെലിവറി ബോയിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതാണ് ഞാൻ നിങ്ങളെ ഡയറക്റ്റ് വിളിച്ചത് പുള്ളി ഇപ്പം എവിടെ എത്തി എന്നുള്ളത് വിവരമൊന്നും നമുക്ക് കറക്റ്റ് അറിയത്തില്ല സോ ഇതെന്താണ് ലേ റ്റ് ആകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫുഡ് കൊടുക്കുന്നത് ലേറ്റ് ആകുമെങ്കി നേരത്തെ പറയേണ്ടതാണ് ഇത് നിങ്ങള് അരമണിക്കൂർ പറഞ്ഞിട്ടിതിപ്പൊ എത്ര നേരായി ഇല്ല ഞാൻ ജസ്റ്റ് കംപ്ലയിന്റ് ആയിട്ട് പറഞ്ഞതാണ് നിങ്ങളിപ്പം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇതുപോലെ ചെയ്യുക എനിക്കിപ്പോൾ കറക്റ്റ് ടൈമിൽ ഫുഡ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് ഓക്കെ ഓക്കെ കുറച്ച് ഫാസ്റ്റ് ആകുന്നത് നല്ലതായിരിക്കും നിങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ എത്തിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്